ഒരു കലാകാരനെന്ന നിലയിൽ എനിക്ക് നേരിട്ട ചില വെല്ലുവിളികൾ വെല്ലുവിളികൾ എന്ന് പറയുവാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പലതരത്തിലുള്ള പേപ്പറിലായാലും ക്യാൻവാസിലായാലും അങ്ങനെ ഉള്ള പലതരത്തിലുള്ള രീതീയിൽ ഉള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുവായിരുന്നു അപ്പോൾ അപ്പോഴത്തെന് എനിക്ക് എസ് ആർട്ടില് തന്നെ ഒര് ഒര് ക്ലാസ്സുണ്ടായിരുന്നു ആ ക്ലാസ്സില് ഞങ്ങൾക്ക് ഒരു ആർട്ട് ടീച്ചറുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ച് വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ഞങ്ങള് വരച്ച് കൊടുക്കുന്ന ഒരു ആ ഒര് കലയ്ക്ക് പുള്ളിക്കാരി അധികം പ്രാധാന്യം കൊടുക്കാത്തത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഞാൻ ഈ ലാസ്റ്റ് ആ കാ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാൻവാസിൻ്റെയൊരു ചിത്രം വരച്ച് പുള്ളിക്കാരിക്ക് കൊടുത്തായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള മാർക്ക് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് പക്ഷേ പുള്ളിക്കാരി അ അത് ഭയങ്കര കാര്യമായിട്ടെടുക്കാതെ ഓ ഒരു പിന്തുണ തരാതെ അതിനെ പരി പിന്തുണ തരാത്ത രീതിയില് ഇതാണെനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നമുക്ക് പിറകിൽ നിന്നൊരു കുറച്ചുംകൂടെ സപ്പോർട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങള് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ കലാപരമായ രീതിയിൽ കുറച്ച് മുന്നേറാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അതിന് സപ്പോർട്ടിന്റെ അഭാവം കൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ പെൻസിലുകളുടെ പെൻസിലുകളൊന്നും ഇല്ലാതിരിക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളും ഇങ്ങനെ ഉള്ള പ്രശ്നനങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നേ സപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല കറക്റ്റായിട്ട് കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ പുറമെ ഉള്ള തടസങ്ങൾ ഒക്കെയുണ്ട് ഇപ്പം ഒരുപാട് ബഹളം കേൾക്കുന്ന അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോഴാണെങ്കിലും ഒ ഒരുപാട് ബുദ്ധിമുട്ടുകള് വരാറുണ്ട് പിന്നേ എന്റെ വീട്ടിലേറ്റവും എന്നെ വരയ്ക്കാൻ പ്രചോദിപ്പിക്കുന്നത് തീർച്ചയായിട്ടും തന്നെ രക്ഷിതാക്കള് തന്നെയാണ് അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഞാനെന്താവശ്യപ്പെട്ടാലും അവര് വാങ്ങിച്ച് തരാറുണ്ട് ഇപ്പം പെൻസിലുകളാണേലും ക ക്രയോൺസായാലും വാട്ടർ കളേഴ്സായാലും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തരാറുണ്ട് അതുപോലെ തന്നെ ഉള്ള പേപ്പറ് അതൊക്കെ അതുപോലെ തന്നെ എനിക്ക് വലിയതായിട്ട് ബുദ്ധിമുട്ടങ്ങനെ തോന്നിയിട്ടില്ല ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ടീച്ചർന്റൊരു പ്രശ്നം മാത്രമേ ഉള്ളു